എൻ്റെ ഗ്രാമത്തിലെ സ്കൂളില് സ്കൂളെന്നു പറഞ്ഞാല് അത്യാവശ്യം നല്ല ഒരു സ്കൂള് തന്നെ സ്റ്റാൻഡേർഡ് സ്കൂള് തന്നെയാണ് അതു മാത്രമല്ല അവിടുത്തെ മൂത്രപ്പുരയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നീറ്റാണ് പണ്ടൊക്കെ എന്നു പറയുമ്പോള് അതിനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു എല്ലാവരും ഒരു അഡ്ജസ്റ്റ്മെന്റില്ല അതുപോലെ പിന്നെ ക്ലീനിങ്ങിനൊന്നും ആളെ കിട്ടത്തില്ല അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോള് അതൊന്നുമില്ല കറക്റ്റ് നീറ്റായത് സ്കൂളുകള് തമ്മില് മത്സരമാണ് ഏത് സ്കൂളാണ് ബെസ്റ്റ് സ്കൂള് അങ്ങനത്തെ ഒരു ഇതിലോട്ട് ഇപ്പോള് മാറിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവരും അവരവരുടെ സ്കൂളുകളെ നീറ്റായിട്ടു കൊണ്ടുനടക്കാൻ ശ്രമിക്കുന്നുണ്ട് മൂത്രപ്പുരയൊക്കെയാണെങ്കിൽ ഭയങ്കര നീറ്റായിട്ട് അതായത് ആവശ്യത്തിനുള്ള മൂത്രപ്പുരയൊക്കെ ഇന്നത്തെ സ്കൂളുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആ പിന്നെ കുടിവെള്ളത്തിന്റെ കാര്യം കുടിവെള്ളത്തിന്റെ കാര്യം മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നുവച്ചാല് പണ്ടത്തെ കുട്ടികള് പണ്ടത്തെയല്ല ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും അതെ സ്കൂളുകളിലൊന്നും കുടിവെള്ളം കൊടുക്കുന്ന ഒരു ശീലമില്ല ആ അപ്പോള് ഈ പുസ്തകങ്ങള് ചുമന്നു കൊണ്ടുപോവുകയെന്നു പറയുന്നതുതന്നെ വലിയൊരു ഭാരമാണ് നടന്നുപോകുന്ന കുട്ടികളെ സംബന്ധിച്ചൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോള് അവര് സ്കൂളിൽ വെള്ളം കൊണ്ടുപോകത്തില്ല പകല് വെള്ളം കുടിക്കത്തില്ല രാത്രി പോയി അങ്ങനെ വെള്ളം കുടിക്കാനുള്ള ഇതൊന്നും ഇല്ലല്ലോ പകലാവുമ്പോള് ഓടിനടന്നു മടുക്കുമ്പോള് കുറേശെയാണേലും വെള്ളം എടുത്തു കുടിക്കും പക്ഷെ ഇപ്പോള് അങ്ങനെയല്ലല്ലോ അതുപോലെ ഇപ്പോള് അതു മാറ്റം വരുത്താൻ പറ്റുന്നൊരു കാര്യമെന്താണെന്നുവച്ചാല് സ്കൂളില് കുറച്ച് എന്താണു പറയുക കുട്ടികൾക്കു കുടിക്കാനുള്ള വെള്ളം ഒരിക്കല് കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയാല് അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും അതുപോലെ കാരണം എന്താണെന്നുവച്ചുകഴിഞ്ഞാല് സ്കൂളില് വെള്ളം ഉണ്ടാകുമ്പോള് കുട്ടികള് ദാഹിക്കുമ്പോള് വന്ന് എടുത്തുകുടിക്കുക അല്ലെങ്കില് അവിടെ വെള്ളം ഉണ്ടോ ശരി പോയി കുടിച്ചേക്കാം മടുത്തില്ലേ പോയിക്കുടിച്ചേക്കാമെന്നു നോക്കുമ്പോള് അങ്ങനെൊരു ഇതുണ്ടാവും പക്ഷെ മറ്റേതു വെള്ളമില്ല ശരി പോട്ടെ സാരമില്ല വീട്ടില്ച്ചെന്നിട്ടു കുടിക്കാം പിന്നെ വീട്ടില്ച്ചെല്ലുമ്പോഴേക്കും ദാഹിക്കണമെന്നില്ല വെള്ളം കുടിക്കണമെന്നില്ല അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നെ പുസ്തകങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാല് പുസ്തകങ്ങളുടെ കാര്യത്തില് പറയുകയാണെങ്കില് എല്ലാ ഒട്ടുമിക്ക സ്കൂളുകളിലും തന്നെ ലൈബ്രറി കാണാം ലൈബ്രറിയിലും ഈ സ്കൂളില് ലൈബ്രറിയുണ്ട് പക്ഷേ എന്താണു കുഴപ്പമെന്നുവച്ചുകഴിഞ്ഞാല് എല്ലാ എല്ലാ വിഷയങ്ങൾക്ക് അരമണിക്കൂര് ഒരു മണിക്കൂര്വച്ചു പഠിപ്പിക്കാനും പഠിക്കാനുള്ള സമയങ്ങങ്ങള് കൊടുക്കാമെന്നുണ്ട് ഡ്രില്ലിനു വരെ സമയമുണ്ട് പക്ഷേ വായനാശീലം വളത്തുന്നതിനായിട്ടു സമയം കൊടുക്കുന്നില്ല ആ വായനശീലം വളർത്തുന്നതിനുവേണ്ടി ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ടു ദിവസമോ അല്ലെങ്കില് ദിവസത്തില് ഒരു അര മണിക്കൂറോ ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ടു തന്നെ സമയം നീക്കിവച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കില് അത് ഏറ്റവും നല്ലൊരു കാര്യമായിായിരിക്കും കുട്ടികളില് വായനശീലം വളർത്തിയെടുക്കാൻ അവർക്കു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അവസരമായിരിക്കും ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കുക എന്നു പറഞ്ഞാല് പിന്നെ മേശയും കസേരയും പണ്ടത്തെ പോലത്തെ ബെഞ്ചും ഡെസ്ക്കും ഒക്കെ മാറി കസേരകളും മേശകളും ഓരോ കുട്ടികൾക്ക് ഇൻഡിവിജ്വലായിട്ടിരിക്കാനുള്ള സാഹചര്യമൊക്കെ ഇപ്പോള് വളർന്നു വന്നിട്ടുണ്ട് അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കില് ഉച്ച ഭക്ഷണം കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഓരോ ദിവസവും വെറൈറ്റി വെറൈറ്റി ഭക്ഷണങ്ങള് അതായത് ഒരു ദിവസം പയറാണെങ്കില് അടുത്ത ദിവസം മറ്റന്തെങ്കിലും അങ്ങനെ നോൺ നോൺ വെജ് അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നൊരു ഒരു അവസ്ഥയുണ്ട് അതുപോലെ സ്പോർട്സിലെ കുട്ടികൾക്കാണെങ്കില് രാവിലെ മുട്ടയും പാലും കൊടുക്കുന്ന ഒരു ശീലമൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് ഇതൊക്കെയാണ് എനിക്ക് ഈ കുടിവെള്ളത്തിൻ്റെ കാര്യം അതുപോലെ പുസ്തകങ്ങളുടെ കാര്യം ഒക്കെയാണ് എനിക്കു മെച്ചപ്പെടുത്തേണ്ടതായിട്ടു തോന്നിയിട്ടുള്ള ഒരു കാര്യം